ഹലോ ആ പറയൂ സാർ ആ സാറത് പ്ലാനുകൾ വരുന്നത് ഒരു മാസത്തേക്ക് ഇത്ര രൂപയ്ക്ക് ഇത്ര റീചാർജ് എന്നാണ് വരുന്നത് അപ്പോൾ നമ്മൾ പരമാവധി പ്ലാനുകൾ അടിപൊളി നല്ല നല്ല പ്ലാനുകളും പിന്നെ അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഒരു മാസത്തേക്ക് സാധാരണ നമ്മളൊരു ഒരു ഫോ എന്താ പറയുക ഒരു സിം കാഡ് അതിപ്പം ഏതോ ആയിക്കോട്ടെ അത് ഒരു രണ്ട് ജി ബി ഡാറ്റ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ മാക്സിമം മുന്നൂറ്റി നാൽപ്പത് രൂപയെങ്കിലും കൊടുക്കണം സാറിവിടെ ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയ്ക്ക് ഓഫറുണ്ട് അതായത് നമ്മൾ ഇത്ര രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടര മാസമാണ് ഇതു ലഭിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഈ രണ്ടര മാസം ലഭിക്കുന്നതാണോ ലാഭം നിങ്ങൾക്കീ ഒരു മാസം ലഭിച്ചിട്ട് അതെന്താ പറയുക ഒരു മാസം ലഭിച്ച് അത് രണ്ട് ജി ബി മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇടുന്നതാണോ നല്ലത് അതോ രണ്ടര മാസത്തേക്ക് നിങ്ങളുടെ ഈ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇടുന്നതാണോ നല്ലത് ഇരുന്നൂറ്റി നാൽപ്പത് ആണ് കേട്ടോ വരുന്നത് ആ ജി എസ് റ്റി അടക്ക ഇരുന്നൂറ്റി നാൽപ്പതാണ് വരുന്നത് അപ്പം നിങ്ങൾ ജസ്റ്റൊന്ന് ശ്രദ്ധിച്ചു നോക്കു ഏതാണ് നല്ലത് നിങ്ങൾക്ക് തോന്നിയത് ഏതായിരിക്കും ആ തീർച്ചയായും ഏയ് ഇതിൽ കളവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഞങ്ങളുടെ കമ്പനി നാലഞ്ച് വർഷമായിട്ടുള്ള ഞങ്ങളുടെ കമ്പനി ആക്സസാണ് അപ്പോൾ നിങ്ങൾക്കെന്തു പ്രശ്നമുണ്ടെങ്കിലും കംപ്ലെയിൻ്റ് ചെയ്യാം ഞങ്ങളുടെ ഫോൺ നമ്പറും ഞങ്ങളുടെ ആധാർ കാർഡും എല്ലാം ഇതിനകത്ത് ലിങ്ക്ഡാണ് ആ നിങ്ങൾക്കെന്തും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കംപ്ലെയിൻറ്റ് എഴുതി തന്നാൽ പോരാത്തതിന് രണ്ടര മാസം കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ അഥവാ രണ്ടര മാസത്തിനുള്ളിൽ ഒരഞ്ച് മിനിറ്റ് വ്യത്യാസമല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വി ജസ്റ്റ് വിളിച്ചാൽ മതി ഏ നമുക്കത് കംപ്ലെയിൻ്റ് രജിസ്റ്റർ ചെയ്ത് നമുക്ക് ബാക്കി പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു തരേണ്ട കടമ ഞങ്ങൾക്കുള്ളതാണ് കേട്ടോ അപ്പം സാറ് നോക്കിയിട്ട് ചെയ്തോളൂ ശരി സാർ താങ്ക് യൂ താങ്ക് യൂ ഫോർ യുവർ കൺഫർട്ടബിൾ താങ്ക് യൂ